ഹലോ ആ ഹലോ അതെയല്ലോ പറഞ്ഞോളൂ ആ ആ ഓക്കെ

ആ ഓക്കെ അപ്പം ഇവിടെ ഹൈഡ്രാ ഫേഷ്യൽ ഉണ്ട് പെഡിക്യൂർ ഉണ്ട് മാനിക്യൂർ ഉണ്ട് ഹെയർ സ്പാ ഉണ്ട് ഹെയർ സ്ട്രെയിറ്റനിംഗ് ഉണ്ട് നെയിൽ ആർട്ട് ഉണ്ട് ത്രെഡിംഗ് ഉണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അപ്പം വേണ്ടത് എന്താണ് ഹെയർ സ്പാ ആണോ ഹൈഡ്രാ ഫേഷ്യലാണോ ആണോ ഓക്കെ ഇത് ഹൈഡ്രാ ഫേഷ്യല് നല്ലതാണ് മുഖത്തിന് പിംപിൾസ് ആ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പോവും കാരണം ഇപ്പോള് ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട് ഹൈഡ്രാ ഫേഷ്യല് ഇപ്പം ബോയ്സ് ആയാലും ബോയ്സും ചെയ്യുന്നുണ്ട് ബോയ്സും ഗേൾസും എല്ലാവരും ഞാനും എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല ഒരു ഇതാണ് ഹൈഡ്രാ ഫേഷ്യല് സ്റ്റാർട്ടിംഗ് രണ്ടായിരം രൂപ ആണ് രണ്ടായിരം രൂപ വരുന്നതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം അത് നമ്മള് ഒരു വട്ടം മാത്രം ചെയ്താല്പ്പോരാ രണ്ടും കൂടി മുഖക്കുരുവിന് അകത്ത് ഒരുപാട് അണുക്കളും കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അപ്പോള് ഒരു വട്ടം ചെയ്താല്പ്പോരാ രണ്ടുമൂന്ന് വട്ടം ഒക്കെ ചെയ്താല് മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുകയുള്ളൂ ഒരു വട്ടം ചെയ്താല് അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റില്ല ഒരു രണ്ട് മൂന്ന് വട്ടം ചെയ്യുക ഉം

നെയിൽ ആർട്ട് നെയിൽ ആർട്ട് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ നെയിൽ ആർട്ട് ഉണ്ട് ഹെയർ സ്പാ ഉണ്ട് പിന്നെ ത്രെഡിംഗ് ഉണ്ട് മാനിക്യൂറും പെഡിക്യൂറും എല്ലാം ഉണ്ട് ഇവിടെ ഓരോന്നിൻ്റെ ഡീറ്റെയിൽസ് മാഡത്തിന് ഞാൻ പറഞ്ഞുതരാം ഹെയർ സ്പാ രണ്ടായിരം രൂപ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം ആണ് മാഡം രണ്ട് മൂന്ന് വട്ടം ചെയ്താല് മാഡത്തിന് നല്ല രീതിയിൽ റിസൾട്ട് അറിയും ഇവിടെ ഒരുപാട് കുട്ടികള് പെൺകുട്ടികൾ ആയാലും ആൺകുട്ടികൾ ആയാലും വന്ന് ചെയ്ത് നല്ല അഭിപ്രായം ആണ് പറഞ്ഞത് ഇപ്പോഴും അവര് രണ്ടുമൂന്ന് വട്ടം വരുന്നുമുണ്ട് പിന്നെ നെയിൽ ആർട്ടിന് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഭയങ്കരം ഒര് ഇത് ക്രേസ് ആണ് കാരണം ജോലി ഒക്കെ കിച്ചണിൽ ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് നഖങ്ങളൊക്കെ പൊട്ടിയൊക്കെ പോവുമല്ലോ അപ്പം അത് ഒരു നല്ല ഒരു ഇതാണ് ഇവിടെ വന്ന് നല്ല നല്ല രീതിയില് ഓരോ കുട്ടികളും അവരുടേതായിട്ടുള്ള ഷേപ്പില് അവർക്ക് അത് ലോംഗ് ആയിട്ട് വേണമെങ്കില് ലോംഗ് ആയിട്ട് ഷോർട്ട് ആയിട്ട് എങ്കില് ഷോർട്ട് ആയിട്ട് അവര് ചെയ്യുന്നുണ്ട് നെയിൽ ആർട്ടിന് നമ്മള് ഒരു സെവൻ ഹണ്ട്രഡ് റുപ്പീസ് ആണ് വാങ്ങിക്കുന്നത് കാരണം ഇത് അവർക്ക് റിമൂവ് ചെയ്യുന്ന ഒരു ഒരു തുണി കൊടുക്കുന്നുണ്ട് കാരണം അവർക്ക് തന്നെ വേണമെങ്കില് റിമൂവ് ചെയ്യാൻ ഉള്ള ഒരു ഓയിലും എല്ലാ കാര്യങ്ങളും അവർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ത്രെഡിംഗിന് നമ്മള് നോർമൽ ആയിട്ട് ഒരു ഷോപ്പില് നാല്പത് രൂപ ആണ് ഒരു ത്രെഡിംഗിന് കാരണം ചിലരുടെ ഹെയർ ത്രെഡിൻ്റെ ഇത് ഹെയർ ഒക്കെ വളരെ കുറവായിരിക്കും അപ്പം അവര് പറയുന്ന രീതിയില് അവർക്ക് എങ്ങനെ ആണോ അവരുടെ ഫേസ് മിററില് കാണാൻ പറ്റുന്നത് ആ രീതിയില് അവർക്ക് ചെയ്തുകൊടുക്കണം പിന്നെ കുറേ എന്താണ് ഹെയർ കട്ടിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കില് അതനുസരിച്ച് ചെയ്യും അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് പിന്നെ ഹെയർ സ്ട്രെയിറ്റനിംഗും ഇപ്പോഴത്തെ ഷോർട്ട് ആയിട്ട് ഉള്ളവർക്കും ലോംഗ് ആയിട്ട് ഉള്ളവർക്കും ചെയ്യുന്നുണ്ട് ഹെയർ സ്ട്രെയിറ്റനിംഗിന് മാഡം കുറച്ച് റേറ്റ് കൂടുതൽ ആണ് ത്രീ തൗസൻഡ് വരും ഹെയർ സ്ട്രെയിറ്റനിംഗ് മാം നമ്മള് ഹെയർ ആദ്യം ഒന്ന് വാഷ് ചെയ്യണം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അതിനെ ഒന്ന് ഉണക്കണം പിന്നെ അതിനകത്ത് നമ്മൾ എന്താണ് പിന്നെ അതിനകത്ത് നമ്മള് കുറേ യൂസബിൾ ആയിട്ടുള്ള ഒക്കെ യൂസ് ചെയ്യും യൂസ് ചെയ്തുകൊണ്ട് ഒന്ന് പിന്നെയും വരണം നമുക്ക് ഹെയര് ഒരു വട്ടം സ്ട്രെയിറ്റ് ചെയ്താല്പ്പോരാ രണ്ട് മൂന്ന് വട്ടം ചെയ്യണം അതുകൊണ്ട് മാഡം എന്താണ് മൂവായിരം രൂപയാണ് അതിൻ്റെ റേറ്റ് ഞാന് മൺഡേ ടു സാറ്റർഡേ വരെ ഇവിടെ ഉണ്ട് സൺഡേ ഞാൻ ലീവ് ആണ് എൻ്റെ എൻ്റെ കൂടെ വേറെ കുട്ടികളും വർക്ക് ചെയ്യുന്നതുകൊണ്ട് സാറ്റർഡേ ഞാൻ ലീവ് കൊടുത്തിരിക്കുകയാണ് മൺഡേ ടു എന്താണ് സാറ്റർഡേ വരെ ഞാൻ ഇവിടെ ഉണ്ട് ഫുൾടൈമുണ്ട് ഞാൻ അങ്ങനെ ഇതുമായിട്ട് എൻ്റെ മെയിൻ വർക്ക് ഇതായിട്ട് പോവുകയാണ് അതുകൊണ്ട് അത് പോലെ മാര്യേജ് വർക്കും അങ്ങനത്ത ഒക്കെ കാര്യങ്ങള് ചെയ്യുന്നതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് കോൺടാക്ട് ഉണ്ടോ എൻ്റെ ഈ നമ്പര് തന്നെ ആണ് ഇതില് കോൺടാക്ട് ചെയ്താല്മതി ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ശരി ഓക്കെ ബൈ